ഹലോ അആ ഇത് ലൈബ്രറി അല്ലേ ലൈബ്രറിയിൽ അ ആ ഞാൻ ലൈബ്രറിയെ കുറിച്ചു കുറച്ചു കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അല്ല എനിക്ക് ഈ ലൈബ്രറി യൂസ് ചെയ്യണം എന്ന് ഇതുണ്ട് സൊ അപ്പോൾ ലൈബ്രറിയുടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ ആ അതെ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല ആ ആദ്യമായിട്ട് വരുന്നതാണ് മെമ്പർഷിപ്പ് ഇല്ലാ അപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ഞാൻ കോളേജിൽ പഠിക്കുന്നതാണ് അല്ല അല്ല ഞാൻ കോളേജിൽ പഠിക്കുന്നു ആ വരാം

ഓക്കേ

ഒക്കേ ഓക്കെ അപ്പം ഈ രണ്ട് കാർഡെന്ന് പറയുമ്പോൾ എത്ര ബുക്ക് എടുക്കാൻ പറ്റും ഓക്കേ ഓക്കേ ആ അപ്പോൾ ഈ ബുക്ക് ഇത്രയും തിരിക്കുമ്പോൾ റിട്ടേൺ ചെയ്യണം അതൊക്കെ എങ്ങനെ മ്മ് ഓക്കേ

ആണോ അപ്പം ഫൈൻ എത്രയായിരിക്കും ഓക്കേ ഓക്കേ

ഒക്കേ ഇപ്പോൾ അവിടെ ഏതൊക്കെ ടൈപ്പ് ബുക്സൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഒരു ഹിസ്റ്ററി സ്റ്റുഡെൻ്റ് ആണ് അപ്പം എനിക്ക് കൂടുതൽ റിസേർച്ച് ചെയ്യുന്ന ബുക്സ് ആണ് വേണ്ടത് അപ്പോൾ ഹിസ്റ്റോറിക്കലി ബന്ധപ്പെട്ട ബുക്സും എനിക്ക് മോസ്റ്റ്ലി വേണം ഞങ്ങളുടെ കോളേജ് ലൈബ്രറിയിൽ ബുക്സൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോജക്റ്റുമായിട്ട് ആവശ്യപ്പെട്ടു വരുന്നതു കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ പബ്ലിക് ലൈബ്രറിയിൽ വന്നതാണ് സൊ എനിക്ക് കുറേ കുറച്ചും കൂടി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്സൊക്കെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ റെഫെറൻസ് ചെയ്യാനും ബുക്സൊക്കെ വേണം ഓക്കേ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ആണെങ്കിൽ ഈ റെഫെറൻസ് വയ്ക്കുന്ന ബുക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ എങ്ങനെയാണ് എടുക്കാം അല്ലേ

ഓക്കേ

ഓക്കേ ആ ഇപ്പം ലൈബ്രറി ടൈം എങ്ങനെയാണ് ഓക്കേ അപ്പോൾ ഈ ഹോളിഡേയ്സ് ടൈമൊക്കെ ഓഫ് ആണോ മ്മ് ഓക്കേ

ഓക്കേ ശരി എന്നാൽ ആ നാളെ ഞാൻ വരാം വന്നിട്ട് ഞാൻ എന്നാൽ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുക്കാൻ വേറൊന്നും വേണ്ടല്ലോ ആ ഓക്കേ ആ ഓക്കേ ആ ഓക്കേ ശരി താങ്ക് യു